ചിത്രരചനയിൽ രചനയിൽ എനിക്കേറ്റവും കൂടുതൽ വെല്ലുവിളി എന്നുപറഞ്ഞതെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ കണ്ണും മൂക്കും വരയ്ക്കാനൊക്കെയാണ് ഭയങ്കരമായിട്ട് പാടുള്ളത് കാരണം അത് കുറച്ച് നല്ല അതായത് നമ്മളിപ്പോൾ ഒരാളുടെ മുഖം വരച്ച് ചില സമയത്ത് മുഖം വരയ്ക്കാനും നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ആളുടെ ഒരു വ്യക്തിയുടെ മുഖം വരയ്ക്കുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പം മുഖം കറക്റ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്കാ ഇതങ്ങു പോകും അതായത് നമ്മളിപ്പമവരുടെ മുഖത്തിനൊരു ഷേപ്പുണ്ടാവും ആ ഷേപ്പ് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല മുഖം വേറെ ആരെങ്കിലും പോയി പോലെ ആയിപ്പോകും അപ്പം അവരുടെ കറക്റ്റ് മുഖം വരയ്ക്കാനും പിന്നെ മൂക്ക് കണ്ണ് ഈയൊരു മൂന്നു വിഭാഗമാണ് കൂടുതലായിട്ടും പാടുള്ളത് കണ്ണ് വലിയ കുഴപ്പമില്ലാണ്ട് രീതിയിൽ ഞാൻ വരയ്ക്കും നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ഞാൻ വരയ്ക്കുമായിരുന്നു പിന്നെ കുറച്ച് പ്രാക്ടീസ് കുറവുള്ളത് കൊണ്ട് മാത്രമാണ് കണ്ണ് ചില സമയത്ത് കിട്ടാണ്ടൊക്കെ ആയിപ്പോന്നെ പിന്നെ മൂക്കും ഒരു ഘടകമാണ് എന്താ പറയാ ഒരു പുള്ളീൻറ്റെ ഇപ്പോൾ ഒരു വ്യക്തിയുടെ മുഖം വരയ്ക്കുകയാണെങ്കിൽ അതിന് മൂക്ക് ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ മൂക്ക് വരയ്ക്കാനും ലേശം പാടുള്ളൊരു കര്യമാണ് അപ്പോൾ മൂക്കൊക്കെ നമ്മൾ ഒന്നിങ്ങനെ അടയാളപ്പെടുത്തിയതിനുശേഷം മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ കറക്റ്റാ ഒരു സ്ഥലത്തെത്തുന്നതുവരെ കറക്റ്റ് അടയാളപ്പെടുത്തിയതിനു ശേഷം വരയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യക്തിയുടെ ചിത്രം തന്നെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഇതിനൊക്കെ മറികടക്കാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക മുഖമൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയതിനു ശേഷം ബോർഡർ ലൈനൊക്കെ കൊടുത്തതിന് ശേഷം വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്കത് കിട്ടും